ആ ഹലോ ആഷിഷെ എന്തോ ഉണ്ട് വിശേഷം ആ ഞാൻ വിളിച്ചതേ ഞാൻ മറ്റേ യൂറോപ്പിൽ ട്രിപ്പ് പോവുന്നതിൻ്റെ കാര്യം ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ അതൊക്കെ ഏകദേശം സെറ്റായി ഫണ്ടൊക്കെ സെറ്റായി അന്നേരം യൂറോപ്പിൽ ചുമ്മാ ഒന്നുപോയി കറങ്ങിയിട്ട് അവിടെയൊക്കെ സ്പോട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് ഇപ്പം വെക്കേഷനല്ലിയോ ഇപ്പം ജോലി ഈ മാസം ജോലിയില്ല അന്നേരം പിന്നെയൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ കറങ്ങി ഒന്ന് പോവാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാ അന്നേരം പക്ഷേ പാസ്പോട്ടിൻ്റെ ഇച്ചിരി പ്രോബ്ലം വന്നു പാസ്പോട്ട് പുതുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു നീ ഈ ഇടയ്ക്ക് പോയി പുതിക്കിയില്ലായിരുന്നോ നിനക്കെവിടെയോ അന്ന് ഗൽഫിൽ പോവേണ്ട സമയത്ത് അതിൻ്റെ ഫോർമാലിറ്റിയൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ നീ അന്ന് പോയപ്പോൾ എങ്ങനെയായിരുന്നു ചെയ്തത് പുതുക്കിയത് അതിനെപ്പറ്റി എനിക്ക് വലിയ പിടിയൊന്നും ഇല്ല അതുംകൂടെ ശരിയായെങ്കിലേ പോവാനുള്ളത് പറ്റത്തുളളൂ അത് പുതുക്കിയില്ലേൽ പറ്റത്തില്ല അത് വേഗത്തിൽ ഒന്ന് പുതുക്കിക്കിട്ടാൻ എന്തുവാ മാർഗം ഇവിടുത്തെ ഇവിടെ ഏവിടെയാ കൊല്ലത്തല്ലിയോ പാസ്പോട്ട് ഓഫീസ് അപ്പം അവിടെപ്പോയി പറഞ്ഞാൽ മതിയോ ഇത് ഓൺലൈനായിട്ട് വല്ലതും ചെയ്യാനൊക്കുമോ ഒരു അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാ അങ്ങനെ അവരോടെങ്ങാനും ഇന്ത്യൻ എംബസ്സി വഴിയോ അല്ലെങ്കിൽ അവിടുത്തെ എംബസ്സിയോ അങ്ങനെയെങ്ങാനും അറിയാവുന്ന പരിചയമുള്ളവരോ വല്ലതും ഉണ്ടായെങ്കിൽ പിന്നേയും കുഴപ്പമില്ല അങ്ങനെയെങ്ങാനും എങ്ങനേലും ഏജൻസി വഴിയോ അങ്ങനെയെന്തെങ്കിലും ശരിയാക്കിയാലേ പറ്റത്തുളളൂ അത് ശരിയാക്കിയില്ലെങ്കിൽ പറ്റത്തില്ല ട്രിപ്പും മുടങ്ങും പിന്നെ സമയം പോവും പിന്നെ ആ ആ സമയത്ത് പോവാനും പറ്റാതാവും പക്ഷേ നല്ലൊരു ട്രിപ്പിൻ്റെ ചാൻസായിരുന്നു അത് എല്ലാം സെറ്റായി വന്നപ്പം അത് മാത്രം ഇതായി കുളമായിപ്പോയെന്നേ ഒരുമാതിരിയായിപ്പോവും അതുകൊണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ വിവരം അല്ലെങ്കിൽ നിനക്ക് ആ നിനക്കറിയാവുന്ന ആരാണ്ട് കൊല്ലത്ത് പാസ്പോട്ട് ഓഫീസില്ലായിരുന്നോ ശരിയാണല്ലോ ആ ഉണ്ടായിരുന്നല്ലോ അപ്പം അതുവഴി എങ്ങനേലും നമുക്ക് കോണ്ടാക്ട് ചെയ്ത് സെറ്റാക്കാനൊക്കുമോ അങ്ങനെയാണെങ്കിൽ ഇച്ചിരിയുംകൂടെ എളുപ്പമായി കിട്ടുമല്ലോ അവരോട് ഇതുപോലെ പറഞ്ഞ് ഇന്ന കാര്യമാ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാക്കി കിട്ടിയാൽ കറക്റ്റ് സമയത്ത് പോവേണ്ട അല്ലെങ്കിൽ പോവാൻ ആ ഇതുപോലെ ഇന്ന സമയത്താ പോവേണ്ടത് അതിനു മുമ്പേ കിട്ടേണ്ട രീതിയിൽ എങ്ങനേലും എന്തേലും ആരോടേലും പറഞ്ഞ് ശരിയാക്കാൻ ഒക്കുമോയെന്നെങ്ങാനും ചോദിച്ച് സെറ്റാക്കാനൊക്കുമോ എന്തുവായാലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ